എൻ്റെ വീട് ഗ്രാമത്തിലാണെങ്കിലും കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ഒരു സ്ഥലത്തിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ വെള്ളത്തിനായാലും ശുദ്ധ വെള്ളം ആയാലും നല്ല ഭക്ഷണായാലും എല്ലാർക്കും ലഭിക്കാറുണ്ട് എന്തെങ്കിലും ദാരിദ്ര്യമുള്ള വീട്ടിലുള്ളവരാണെങ്കില് പാർട്ടി സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാര് അവർക്ക് നല്ല ഭക്ഷണവും നല്ല വെള്ളവും എത്തിക്കുന്നുണ്ട് എന്തെങ്കിലും വെള്ള ക്ഷാമം ഉണ്ടെങ്കില് കിണറുള്ള മറ്റു വീടുകളില് പോയിട്ട് വീടുകള് ആൾക്കാര് വെള്ളം എടുത്ത് സ്വന്തം വീട്ടില് പോയിട്ട് പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു പ്രവണതയും എൻ്റെ നാട്ടില് കാണാറുണ്ട് അതുകൊണ്ട് പോഷക ആഹാരക്കുറവ് എൻ്റെ നാട്ടില് ജനങ്ങളെ ബാധിക്കാറുണ്ട ഇപ്പ ബാധിക്കുന്നില്ല ആ പ്രശ്നം മുന്നേ ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ ഇല്ല